ഞങ്ങളുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കലാരൂപങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ മറ്റുള്ള നാടുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് കാരണം നമ്മുടെ നാടില് ഞങ്ങളുടെ നാട്ടില് ഒരുപാട് മൺപാത്രങ്ങളും കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച് പാചകം ചെയ്യുകയും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മണ്ണ് കൊണ്ടുള്ള ശില്പങ്ങളും ഒക്കെ ധാരാളമായിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ ഒക്കെ അത് എത്രമാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും അവിടെയൊക്കെയുള്ളത് പ്ലാസ്റ്റിക്കും അങ്ങനത്തെ മറ്റ് സാധനങ്ങൾ വച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഉപകരണങ്ങളും പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ തുണിത്തരങ്ങൾ പറയുകയാണെങ്കിൽ സാരി എന്ന് പറയുന്നത് സാരി എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തില് ഒരു പ്രത്യേക ഇടമുള്ള ഒരു തുണിത്തരമാണ് ഓരോ സംസ്ഥാനത്തും ഓരോ രീതിയിലാണ് സാരി ഉടുക്കുന്നത് അപ്പോള് സാരി ഉടുക്കുന്ന രീതി കാര്യങ്ങളുമൊക്കെ പലടത്തും പല പല സംസ്ഥാനത്തും പലരീതിയിലാണ് അതുപോലെ തന്നെ അത് മറ്റുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു അല്ലെങ്കിൽ അവർക്കൊരുപാട് കൗതുകമുണ്ടാക്കുന്ന ഒരു വസ്ത്രമാണ് സാരിയെന്ന് പറയുന്നത് കാരണം നീളത്തിലുള്ള ഒരു തുണി മാത്രമാണ് സാരി എന്ന് പറയുന്നത് അത് നമ്മളെ എങ്ങനെ അത് ഉടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വസ്ത്രത്തിൻ്റെ വ്യത്യാസമെന്നു പറയുന്നെ